ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളായിട്ട് ഒന്നും തന്നെ എനിക്ക് പറയാനില്ല കാരണം എനിക്ക് പുസ്തകങ്ങൾ വായിക്കുന്നതിനോടോ കഥകൾ വായിക്കുന്നതിനോടോ ഒന്നും താൽപ്പര്യമില്ലാത്ത പണ്ട് തൊട്ടേ ഇല്ല പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നത് കുറച്ച് കേൾക്കും പഠിക്കും അത് കഴിഞ്ഞു പരീക്ഷ എഴുതും ജയിക്കും അത്ര തന്നെ ആ രീതിയിലാണ് പോകുന്നത് യാഥാർത്ഥമായിട്ടുള്ള സംഭവങ്ങളെ ആകെ അടിസ്ഥാനമാക്കി എന്തോരം പുസ്തകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടേതായിട്ട് ഒന്നുമില്ല അത് പണ്ടുമൊക്കെ എഴുതുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും നമ്മൾക്ക് പിന്നെ വായിക്കുന്നതിനോടൊന്നും താൽപ്പര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ഇല്ല ഇതൊന്നും കേൾക്കാനൊന്നും മെനക്കെടത്തില്ല ഒന്നാമത് ഇങ്ങനെ ഒത്തിരി നേരം മെനക്കെട്ട് ഇരുന്ന് കേൾക്കുന്നതിനോടൊന്നും ഒരു താൽപ്പര്യുവില്ല പിന്നെ ഇത് ഓരോരുത്തരൊക്കെ അടിച്ചിറക്കും ബുക്കുകൾ ബുക്കൂം അതിലൊക്കെ ഉണ്ട് അത് വായിക്കുകയാണെങ്കിൽ അറിവ് വർധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് അതെല്ലാം സമ്മതിക്കുന്നു നമ്മൾക്ക് ഇപ്പോൾ ഇപ്പം ആ രീതിയിലുള്ള അറിവ് വർധിപ്പിക്കാനൊന്നും നമ്മൾ തയ്യാറെടുക്കുന്നില്ല നമുക്ക് ആവശ്യംച്ചായിത് എന്തേലൊക്കെ ഇച്ചിരി കേക്കാ പോവ്വാ അത്രെ ആ രീതീലുള്ളതാണ് അങ്ങനെ കൂടുതലായിട്ടൊന്നും കേക്കുന്നേനും ഒന്നും അങ്ങനെ താൽപ്പര്യം പോലുവില്ല പിന്നെ സംഭവങ്ങളൊന്നും എല്ലാം നല്ലതാണ് ഏതെങ്കിലുവൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു കഴിഞ്ഞാൽ അത് അനുസരിച്ച് പുസ്തകങ്ങളൊക്കെ ഓരോരുത്തരുടെ ഉടനെ അടിച്ചിറക്കും കഥ എഴുതി ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഇഷ്ടപ്പെടാനായിട്ട് അത് വായിക്കുന്നവർകൊക്കെ ഇഷ്ടമുണ്ടാവും നമ്മൾ വായിക്കുന്നില്ല അത് കാരണം നമുക്ക് അതിനോട് വലിയ താൽപ്പര്യം ഇല്ലാത്തത് കൊണ്ടൊന്നും ഇഷ്ടപ്പെടാനും വഴിയില്ല പിന്നെ പുസ്തകങ്ങളൊക്കെ അടിച്ച് ഇറക്കിയെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കും പറഞ്ഞു കേട്ടാൽ മതിയല്ലോ നമ്മൾക്ക് ഇതിൽനിന്നും കൂടുതലായിട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ അതൊന്നും ചെയ്യില്ല പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു പിന്നെ പിന്നെ അതിനെപ്പറ്റി പറയാമെന്ന് വച്ചാൽ ഇഷ്ടം പോലെ ഇംഗ്ലീഷിലും മലയാളത്തിലും പല ഇതിൽ അങ്ങനെ ആൾക്കാർകൊക്കെ ഇഷ്ടമുള്ള ഉള്ള ഒത്തിരി പേര് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും അത് അങ്ങ് പുസ്തകങ്ങൾ എഴുതുകയും പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ ഇഷ്ടം പോലെയുണ്ട് പക്ഷെ എന്നു പറഞ്ഞാൽ നമുക്ക് ഇതിനോട് ഒരു താല്പര്യവും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ താൽപ്പര്യമൊന്നുമില്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറ്റത്തില്ല അതൊക്കെ ചില ഇച്ചിരി നേരം ഇരിക്കുമ്പം നിൽണമെന്ന് തോന്നും നിൽക്കുമ്പം ഇരിക്കണമെന്ന് തോന്നും അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ജോലി ഒത്തിരി നേരം ചെയ്യാൻ കഴിയത്തില്ല എല്ലാ കാര്യങ്ങളിലും മടിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇതൊന്നും കൂടുതലായിട്ട് ചെയ്യാറില്ല പിന്നെ ഇഷ്ടപ്പെട്ടതെന്ന് പറയാനായിട്ട് ഇഷ്ടപ്പെട്ട യഥാർത്ഥ സംഭവങ്ങളെന്ന് പറയാനായിട്ട് ഒന്നും പ്രത്യേകിച്ച് അതൊക്കെ ഓരോരുത്തർ അടിച്ച് ഇറക്കി ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ താൽപ്പര്യം കാണും നമ്മൾക്ക് അതിനോടൊന്നും വലിയ താൽപ്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കേട്ടു വച്ചു അങ്ങനെ അങ്ങു മുന്നോട്ട് അങ്ങ് പോകും എന്തോ ചെയ്യാനാണ് നമ്മൾക്ക് എല്ലാമൊന്നും കൂടുതൽ നോക്കി മുന്നോട്ട് പോവാനൊന്നും പറ്റുന്നില്ല പിന്നെ പുസ്തകങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇല്ലെങ്കിലും പിന്നെ മറ്റുള്ളവർ വായിക്കുന്നതൊക്കെ കേൾക്കുന്നതോ വായിക്കുന്നതോ അറിയുമ്പോഴൊക്കെ എനിക്ക് അത് സന്തോഷമുണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്താലും അതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല അങ്ങനെ ഒരു ഇതാണ് ഓക്കേ